ഹലോ ഇത് ക്യാബിൻ്റെ ഡ്രൈവർ അല്ലേ ആ നാളെ ഞാൻ എയർപോർട്ടിൽ പോവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇന്ന് രാവിലെ ആ അതെ അതുതന്നെ ആ അപ്പോൾ നിങ്ങൾ മോണിംഗ് എത്ര മണിയാകുമ്പോഴാണ് എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണേ എനിക്ക് കറക്റ്റ് ടൈമിൽ എനിക്ക് അവിടെ എത്തണം അപ്പോൾ ഞാൻ ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ എത്തണം ലേയ്റ്റായി കഴിഞ്ഞാൽ ശരിയാവുകയില്ല അപ്പോൾ നിങ്ങൾ ഒരു കോഴിക്കോട് ഒരു എട്ടു മണി ആകുമ്പോത്തേക്കെങ്കിലും മിനിമം എത്തണം എനിക്ക് ആ ടൈമിൽ എങ്കിലും എത്തിയാലേ അവിടെ പോകാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഓക്കേ നിങ്ങൾ എന്നാൽ എട്ടു മണി ആകുമ്പോഴേക്കും വന്നാൽ മതി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എവിടെയാണ് നിൽക്കേണ്ടത് നിങ്ങൾ ഏകദേശം ഒരു നിങ്ങൾക്കറിയാവുന്ന ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് നിൽക്കാം ആ ഓക്കേ ഓക്കേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ടിപ്പോൻ്റെ അവിടെ ഓക്കേ ഓക്കേ ആയിക്കോട്ടെ ഓക്കേ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും ലെയിറ്റ് ആവരുതേ എനിക്ക് കറക്റ്റ് ടൈമിൽ എത്തേണ്ടതാണെ ആ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ നിങ്ങൾ എന്തായാലും നേരത്തെ വരൂ കെട്ടോ ആയിക്കോട്ടെ ശരിയെന്നാൽ